ആയോധനകല എന്നു പറയുന്നത് തികച്ചും ഒരു വ്യക്തിപരമായ ഒരു താല്പര്യമാണ് ഒരാൾക്ക് ആയോധനകലാകാരനായി വളരുക എന്നതാണ് താല്പര്യമെങ്കിൽ അയാൾ അങ്ങനെതന്നെ പോകണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇനിയൊരു തോന്നൽ എന്നു പറയുന്നത് അദ്ദേഹം ആയോധനകലയെ പഠിക്കുകയും പഠിപ്പിക്കുകയും ആ അത് പരിശ്രമിക്കുകയൊക്കെ ചെയ്യുക എന്നു പറയുന്നത് അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചാണ് അതുകൊണ്ടൊക്കെത്തന്നെ അതിലൊരുപാട് അങ്ങ് അഭിപ്രായങ്ങൾ പറയാൻ ഞാൻ എനിക്ക് ഉദ്ദേശമില്ല ഭാവിയിലെ എന്നെയവിടെ കാണാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ മറുപടി എന്നു പറയുന്നത് എനിക്ക് കവിതകൾ എഴുതാൻ വളരെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് അതുപോലെ കലാപരമായി പറയുകയാണെങ്കിൽ നൃത്തം പ്രത്യേകിച്ച് മോഹിനിയാട്ടം എന്നു പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മോഹിനിയാട്ടം ചെയ്യാൻ എൻ്റെ ചെറിയ പ്രായം മുതൽക്ക് തന്നെ ഞാൻ

ഇന്നത്തോടകം തന്നെ ഞാൻ ധാരാളം പരിപാടികൾ സ്റ്റേജ് പരിപാടികൾ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ജോലി ചെയ്യുന്നിടത്തും ഓണപ്പരിപാടികൾ പോലുള്ള പരിപാടികൾ വരുമ്പോൾ ഞാൻ നൃത്തം ചെയ്യാറുണ്ട് പിന്നെ മനസ്സിൻ്റെ ഒരാഗ്രഹം എന്നു പറയുന്നത് കഥകളി പഠിക്കണം അഭ്യസിക്കണം അങ്ങനെയൊരു കലാകാരനായി പരിണമിക്കണം കലാകാരിയായി പരിണമിക്കണം എന്നൊരാഗ്രഹം മനസ്സിലെപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനുള്ള പ്രയത്നങ്ങൾ ആരംഭിക്കണം എന്നുള്ള മാനസികമായിട്ടുള്ള തീരുമാനത്തിൽ ഇരിക്കുകയാണ് ഞാൻ ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ കലാപരമായി ഏതെങ്കിലും ഒരു നിലയിലെത്തുക എന്നത് എൻ്റെ മാനസികമായിട്ടുള്ളൊരു താല്പര്യമാണ് ചെറുതിലേ ഉള്ള താല്പര്യമാണെന്നുതന്നെ പറയേണ്ടിവരും അതിനനുസരിച്ചുള്ള എല്ലാ രീതിയിലുള്ള പ്രാക്ടീസുകളും ഞാൻ ചെയ്യാറുണ്ട് മോഹിനിയാട്ടമായാലും കഥകളി ആയാലും എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മേഖലയാണ് കൂടുതൽ അറിയുന്നത് മോഹിനിയാട്ടമായതുകൊണ്ട് മോഹിനിയാട്ടത്തിൽ എവിടെയെങ്കിലും എത്തിയാലും എനിക്ക് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയാണ് പിന്നീട് മറ്റൊന്നെന്ന് പറയുന്നത് എൻ്റെ എഴുത്ത് കവിതകളെന്ന് പറയുന്നത് പ്രണയം അതുപോലെ തന്നെ വിരഹം പോലുള്ള ഇതിൽ വ്യവസ്ഥയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ മുൻനിർത്തിക്കൊണ്ടിരുന്ന കവിതകളാണ് അതാണ് എൻ്റെ കൂടുതലായിട്ടും ഞാൻ നോക്കുന്ന വിഷയങ്ങളെന്ന് പറയുന്നത് അതും ഈ പറയുന്നപോലെതന്നെ നല്ല രീതിയ്ക്ക് ഒരു പുസ്തകപ്രകാശനം ഒക്കെ ചെയ്ത് ഒരു എഴുത്തുകാരി എന്ന നിലയിൽ അറിയപ്പെടാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്